ടെക്സ്റ്റ് ടു സ്പീച്ച് മുതലായ സാങ്കേതിക വിദ്യകൾ ഓൺ ലൈൻ ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്കിങ് സേവനങ്ങൾ ചില സന്ദർഭങ്ങളിൽ കൂടുതൽ ഉപയോഗ ഉപയോഗപ്രദമാണ് കാര്യം ഓൺ ലൈൻ ബാങ്കിങ്ങെന്നൊക്കെ പറയുമ്പം കൺവീനിയന്റ് ആണ് ഇപ്പം ഞായറാഴ്ച ആവട്ടെ രാത്രി പന്ത്രണ്ട് മണി ആവട്ടെ രാത്രി ഒരുമണി ആവട്ടെ അതായത് നമ്മൾ നേരിട്ട് ബാങ്കിൽ പോയ് ചെയ്യേണ്ട ഇടപാടുകളെല്ലാം നമുക്ക് നമ്മുടെ ഫോണിലും മറ്റും സംങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അത് വളരെ നല്ലൊരു കാര്യമാണ് കാര്യം ഒരു മറ്റൊരാളുടെ സഹായമില്ലാതെ മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ കാര്യം എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാം എത്രയും കുറച്ച് സമയം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന സാധനങ്ങളൊക്കെയാണെങ്കിൽ വന്നതുകൊണ്ട് അന്നെ ഈ വയസ്സായവർക്കെല്ലാം അവരുടെ ടെക്സ്റ്റോകെ അവർക്ക് അത് വോയ്സിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു തരുന്നതുകൊണ്ട് അവർക്കും അത് മറ്റേ എളുപ്പം ആണ് കാര്യം ഇംഗ്ലീഷൊക്കെ അറിയാത്തവരാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആപ്പ്സ് ഉണ്ട് വെബ് സൈറ്റ്സ് ഉണ്ട് അതൊക്കെ നല്ലതാണ് അങ്ങനെ ഉള്ള കുറേ ഉപയോഗങ്ങളുണ്ട് നമ്മടെ ഈ വെബ് സൈറ്റ്സ് ഉപയോഗിച്ചിട്ട് പക്ഷെ ചില സമയങ്ങളിൽ ഇതെല്ലാം ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് അതായത് ചില സമയങ്ങളിൽ മനുഷ്യൻ്റെ ഒരു സാ ഒരു ഇടപെടലില്ലാത്തതുകൊണ്ട് തന്നെ ചില സംശയങ്ങൾ ദൂരീകരിക്കാനും അ ചില നല്ലോണം പ്രായമായവർക്ക് ഇതൊന്നും ഉപയോഗിക്കാനറിയത്ത ആൾക്കാർക്ക് നേരിട്ടൊന്ന് കണ്ട് സംസാരിച്ച് കാര്യം ചോദിക്കാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും ആ ഒരു പ്രശ്നം നമ്മൾ അനുഭവപ്പെടുന്നുണ്ട് അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഉപയോഗങ്ങളാണ് ഉണ്ടാകുന്നത് ഉപയോഗങ്ങളെന്നു കൺവീനിയന്റ് ആണ് നമുക്ക് കുറേ എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാം ബാങ്കിങ് സേവനങ്ങൾ എല്ലാം അതെല്ലാം വളരെ നല്ല ഉപയോഗങ്ങളെന്നരീതിക്ക് നമുക്ക് കണക് കൂട്ടാവുന്നതാണ് എല്ലാത്തിനും നല്ലതും ദോഷങ്ങളുള്ളതു പോലെതന്നെ ഇതിനും നല്ലതും ദോഷങ്ങളൊക്കെ ഉണ്ട് ചില സമയങ്ങളിൽ മനുഷ്യൻ ഒരു വ്യക്തിയുടെ സ ഒരു ഇടപെടലില്ലാത്തതുകൊണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള എവിടെ ക്ലിക്ക് ചെയ്താൽ എന്തുവരും എന്നുള്ള മറ്റ് കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ട് പൈസ നഷ്ടപെടാനുള്ള സാഹചര്യമുണ്ട് എങ്കിലും എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോയാൽ എല്ലാ സാങ്കേതിക വിദ്യകളും നല്ലതായി ഉപയോഗിക്കാം